ഹലോ എന്താണ് പറഞ്ഞോളൂ ആ അതെ പറഞ്ഞോളൂ എന്താ കാര്യം ഞാനെന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് വേഗം പറഞ്ഞോളൂ ആണോ അത് രണ്ടു നില വീടാണോ ആ എന്തോരം സ്ക്വയർഫീറ്റൊക്കെ ഉണ്ടതിന്

ആ അപ്പോള് എന്തൊക്കെ എക്യുപ്മെൻസ് ഇലക്ട്രോണിക്സിൻ്റെ വയ്ക്കാനാണു നിങ്ങള് പ്ലാൻ ചെയ്യുന്നത് ആ എല്ലാം ഉണ്ട് ആ ഓക്കെ ഓക്കെ അപ്പോള് ഇതിൻ്റെ റേറ്റ് വരുമ്പോള് ഇച്ചിരി കൂടുതലാണ് കാരണം നമ്മള് സാധനങ്ങളൊക്കെ ഞാന് പോയി മേടിച്ചിവിടെ വന്ന് നമ്മളെല്ലാം സെറ്റെയ്യ്ന്നതുകൊണ്ട് ഇത് റേറ്റ് കൂടുതലായിരിക്കുമൊരു രണ്ടര മൂന്ന് അടുത്തെത്തും ഓക്കെയാണോ അത് നമുക്കങ്ങന പറയാൻ പറ്റില്ല കാരണം നമ്മള് പരമാവധി കുറച്ചാ കാരണം നമുക്കറിയാം നമ്മുടെ എക്യുപ്മെൻസിന് ഒരു സ്വിച്ച്ബോഡൊരു ഒരു ചെറിയ പ്ലഗ്പോയിന്റ് തന്നെ ഏകദേശം നൂറൂ രൂപയുടെ അടുത്തു വരുന്നതാണ് അത് നമുക്കിത്രയുംവരെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മറ്റു സാധനങ്ങളൊക്ക മേടിച്ചുവരുമ്പോള്ത്തന്നെ ഇതിലും കൂടുതല് വരും അത് ഞങ്ങൾ ഞങ്ങളുടെ കൂടി ഇതിന് ഒര് ഓഫറിട്ട് തരുന്നതാണ് മേഡത്തിന് ഞങ്ങള് അങ്ങനെ ആയിരുന്നെങ്കിലല്ലെങ്കില്പ്പിന്നെ നിങ്ങള് സാധനങ്ങള് മേടിച്ചുതരണം പിന്നെ ഞങ്ങള്ക്ക് ഞങ്ങളുടെ പണിക്കൂലി മാത്രം നോക്കിയാല് മതി അതിപ്പോള് അത്രയും വരില്ല പണിക്കൂലി ഒരു ലക്ഷം കാരണം ഇത്ര തുളയ്ക്കുകയും പറിക്കുകയും ലെവലാക്കുക അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെക്യുപ്മെൻസ് കുറേ എടുക്കുന്നതുകൊണ്ട് പണിക്കാരുണ്ട് അങ്ങനെ നില്ക്കുമ്പോള് ഒരു അമ്പതിനായിരം അറുപതിനായിരമാണ് ഒരു റേഞ്ച് വരുന്നത്

അവിടെ ചെന്നു ചോദിക്കുമ്പോള് നമുക്ക് ഓഫറില് നിങ്ങള് പരിചയുള്ള ഏതേലും കട വേറെ ഉണ്ടെങ്കില് അവിടെ ചെന്ന് ചോദിക്കുകയാണെങ്കില് നിങ്ങള്ക്ക് സാധനങ്ങള് ഒരു ഡിസ്കൗണ്ടില് കിട്ടുമല്ലോ സോളാർ സിസ്റ്റം നിങ്ങള്ക്കു വേണമെന്നുണ്ടെങ്കില് ഞങ്ങളതു ചെയ്തു തരുന്നതായിരിക്കും റേറ്റ് നിങ്ങള് മേടിച്ചുതരുവാണെങ്കിൽ അതു ഞങ്ങൾക്കും ചെയ്തുതന്നാല് മതയല്ലേ ഞങ്ങള്ക്ക് അല്ല ഞങ്ങള് മേടിക്കാൻ പറയുമ്പോള് അതിൻ്റെയുംകൂടെ പൈസ നിങ്ങള് ഞങ്ങള്ക്കു തരേണ്ടിവരും ആ പണിക്കൂലി ഇതാണെങ്കിൽ ഇത് നിങ്ങള്ക്ക് അത് സാധനങ്ങള് മേടിച്ചതു ഞങ്ങള്ക്കു തരുവാണെങ്കില് അതെ ഞങ്ങള് പണി മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലെങ്കില്പ്പിന്നെ നിങ്ങള് പൈസ അതു സാധനങ്ങൾക്കും കൂടെയുള്ള പൈസ ഞങ്ങള്ക്ക് തരേണ്ടിവരും അപ്പോള്ത്തന്നെ ഇരട്ടി ഇതാവും എന്നാലും പിന്നെ നിങ്ങള്ക്കറിയാവുന്ന കടയും പരിചയമുള്ളതാണെങ്കില് ചെറിയ ഡിസ്കൗണ്ടുകളൊക്ക നമുക്കു കിട്ടും ആ കാരണം നിങ്ങള് ആ ആ എന്നാല് നോക്കിയിട്ടു പറഞ്ഞാല് മതി ഞങ്ങളെ വിളിച്ചോ ഇനിയെന്തെങ്കിലിതുണ്ടെങ്കില് ഈ നമ്പറിലേക്കു വിളിച്ചാല്മതി ശരി എന്നാല് ആയിക്കോട്ടെ താങ്ക്യൂ